എനിക്ക് നല്ല പിന്നെ നല്ല ഫുഡ് കഴിക്കണം നല്ല ദം ബിരിയാണി ഏറ്റവും നല്ലത് എവിടെ കിട്ടും കാരണം നല്ല സ്പൈസി ആയിരിക്കണം നമ്മുടെ അതായത് നമ്മുടെ ഇവിടെ തന്നെ തലശ്ശേരി ബിരിയാണി കോഴിക്കോട് ബിരിയാണിയുടെ കൂടെത്തന്നെ തലശ്ശേരി ബിരിയാണിൻ്റൊരു വെച്ചു വരുന്ന രീതിയില് നല്ല ബീഫ് ബിരിയാണിയും പിന്നെ നല്ല ഫുഡ് ചൈനീസ് ഫുഡ് ആയാലും എനിക്ക് കുഴപ്പമില്ല ഏറ്റവും നല്ല റസ്റ്റോറന്റിലെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണ് കഴിക്കുന്നത് എന്ന് അറിഞ്ഞാൽ അവിടെ പോയിട്ട് കഴിക്കാമല്ലോ നല്ല ഇത് എവിടെയാണ് കിട്ടുന്നതെന്ന് പിന്നെ നല്ല ഭക്ഷണം വേണം കാരണം നമുക്ക് ഫുഡ് നമ്മുടെ നല്ല സീ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന നല്ല സീ ഫുഡ് ഫ്രഷ് മീൻ നല്ല റസ്റ്റോറന്റ് എന്തെങ്കിലുമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പോയി കഴിക്കാനായിരുന്നു